തീർച്ചയായും മക്കൾക്ക് കൊടുക്കാം മക്കൾക്ക് പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്നുള്ള തിരിച്ചറിവൊന്നും വ്യത്യാസമൊന്നും പാടില്ല എല്ലാ മക്കളും ഒരേ പോലെയാണ് അപ്പം മക്കൾക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലാപ്പ് കിട്ടിയാൽ ദുരുപയോഗം ചെയ്യരുത് പക്ഷെ അത് നല്ല വശങ്ങൾ ഒത്തിരിയുണ്ട് ഒരു സൈക്കിള് കിട്ടുകയാണെങ്കിൽ മക്കൾ എത്ര ദൂരം നടന്ന് ബസ്സിൽ തൂങ്ങിപ്പിടിച്ചു വരുന്നത് പകരം അവർ സൈക്കിളുണ്ടെങ്കിൽ അവർ സ്വന്തം ആയിട്ട് സെൽഫായിട്ട് അതിൽ ചവുട്ടി സ്കൂളിൽ പോകുന്നു അവർ എനർജെറ്റിക്കായിരിക്കും അപ്പം മടുപ്പില്ല പോകുവാനൊരു മടിയുണ്ടാവില്ല കുറച്ചു കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ആ സൈക്കിള് ചവുട്ടി പോകുവാൻ അവർക്ക് സന്തോഷമായിരിക്കും പിന്നെ പ്രൊജക്ടുകൾക്കൊക്കെ ലാപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പം അവർക്ക് എക്സ്ട്ര കാര്യങ്ങളൊക്കെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ലാപ്പ് ഒരു ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഉം പല ഭാഗത്തും ഇങ്ങനെ നല്ല പദ്ധതികളൊക്കെ വിജയം കണ്ടിട്ടുണ്ട് കേരളത്തിലും അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരട്ടേ എന്ന് ആശംസിക്കുന്നു